ബൈക്ക് ടു വീലറ് ഓടിക്കാൻ തുടങ്ങുന്നവർക്ക് സംഭവിക്കാറുള്ള ഒരുപാട് സാധാരണ തെറ്റുകൾ ഒരുപാട് തെറ്റുകൾ ഇതു ചെയ്യാറുണ്ട് കാരണം ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ ടൂ വീലർ റൺ ചെയ്യുക എന്നു പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പലപ്പോഴും പലരും ധരിക്കാറുള്ളത് കാരണം കുട്ടികൾ ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഈ ടിവിയിലും അല്ലെങ്കിൽ എന്താണ് അവരെ ആരാധന കഥാപാത്രമായിട്ടുള്ള ഒരു എന്താണ് ഓടിക്കുന്നത് കണ്ടും അല്ലെങ്കിൽ നാട്ടിലെ ചില ഈ റോൾ മോഡൽസ് ഓടിക്കുന്നത് കണ്ടൊക്കെ ആയിരിക്കും പലരും ബൈക്ക് ഓടിക്കാൻ തുടങ്ങുന്നത് അല്ലേ ബൈക്ക് മേടിക്കാൻ തുടങ്ങുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇവർക്ക് സംഭവിക്കാവുന്ന വളരെ തെറ്റുകൾ എന്നു പറയുന്നത് ഏറ്റവും കൂടുതൽ എന്നു പറയുന്നത് പറയുന്നത് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് അറിവോടുകൂടി വണ്ടി ഓടിക്കുക ആണെങ്കിൽ അപകടങ്ങളിൽ നിന്ന് നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ പലരും ഒരു ബൈക്ക് ഓടിക്കുക ബൈക്ക് സ്പീഡിൽ പോവുക എന്നുള്ള കാര്യം മാത്രമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുള്ളു പക്ഷെ ഏറ്റവും കർശനമായിട്ട് ചെയ്യേണ്ടതും ഏറ്റവും പാലിക്കപ്പെടേണ്ടത് എന്നു പറയുന്നത് നമ്മൾക്ക് നിയമങ്ങൾ തന്നെയാണ് ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ നമ്മൾ ഓരോ രാജ്യത്തും ഓരോ റോഡ് നിയമങ്ങൾ ആണ് നമ്മൾക്ക് ഇത് ചെയ്യാനുള്ളത് അപ്പം ആ രാജ്യത്തെ അല്ലേ നമ്മളായിരിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തതെന്ന് എന്നു പറയുന്നത് നമ്മുടെ നമ്മുടെ നാട് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് നാട് ആണെങ്കിലും ഓരോ സ്ഥലങ്ങൾ അനുസരിച്ചു അതിൻ്റെ ഭൂപ്രകൃതിയും അല്ലെങ്കിൽ ആ ഒരു റോഡിൻ്റെ സൈഡുകളും അല്ലെങ്കിൽ റോഡിൻ്റെ ഏരിയയും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അപ്പം ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കി അതിന് അനുസരിച്ച് കൃത്യമായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇപ്പം നമ്മൾക്ക് ആലപ്പുഴ എന്നു പറയുന്ന ജില്ലയും അല്ലെങ്കിൽ വയനാട് എന്നുപറയുന്ന ജില്ലയും വ്യത്യസ്തമാണ് ആലപ്പുഴ എന്ന ജില്ലയിൽ കൂടുതലും നേരായിട്ടുള്ള റോഡുകളാണ് വളവും തിരിവുകളും കുറവാണ് അല്ലെങ്കിൽ കയറ്റങ്ങൾ കുറവാണ് പക്ഷെ ഒരു വയനാട് എന്നുപറയുന്ന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളവുകളും തിരുവുകളും വളരെ കൂടുതലുള്ളതും കയറ്റങ്ങളും ആയിട്ടുള്ള റോഡ് ആണ് അപ്പം ആലപ്പുഴയിൽ വണ്ടി ഓടിക്കുന്നതു പോലെ ഒരിക്കലും നമുക്ക് വയനാട്ടിൽ പോയി വണ്ടി ഓടിക്കാൻ സാധിക്കത്തില്ല അപ്പം ആ ഒരു ഭൂപ്രകൃതി കൃത്യമായിട്ട് മനസിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഓരോ വണ്ടിക്കും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട് ഓരോ വണ്ടിയും നൽകുന്ന ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ് ഓരോ ഇപ്പം എന്താണ് ഒരു നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ വില കൊടുത്തു മേടിക്കുന്ന ഒരു ആർ സി ഡൂക്ക് എന്നു പറയുന്ന ബൈക്ക് നൂറ്റി ഇരുന്നൂറ് കിലോമീറ്ററ് സ്പീഡിൽ പോകുമ്പോഴും അത് അതിൻ്റേതായ അതിൻ്റെ പ്രത്യേകതകൾ അല്ലങ്കിൽ അതൊരു സ്പോർട്സ് ബൈക്ക് ആണ് പക്ഷെ ഒരു സ്കൂട്ടറ് ഓടിക്കുന്ന ഒരു ആക്ടിവ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറു കിലോമീറ്റർ സ്പീഡിൽ പോവുകയെന്ന് പറയുമ്പോൾ ആ വണ്ടിക്ക് അതിനെ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള അതിൻ്റെ ഇത് ഉണ്ട് വണ്ടിയുടെ വെയിറ്റ് ബാലൻസ് പോകാനുള്ള ചാൻസുകൾ ഉണ്ട് അപ്പം ആ ഒരു വണ്ടി ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പാലിക്ക്ക എന്നുള്ളതാണ് അപ്പം ഏറ്റവും കർശനമായിട്ട് പാലിക്കേണ്ട നിയമം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് തികയുന്ന ഒരാൾക്കാണ് നമ്മുടെ രാജ്യത്ത് ലൈസൻസ് അനുവദിക്കുക എന്നുള്ളത് അപ്പം പതിനെട്ട് വയസ്സായതിനു ശേഷം ലൈസൻസ് എടുത്തതിനുശേഷം വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ നമ്മൾ തിരക്കേറിയ റോഡുകളിലും അല്ലെങ്കിൽ എന്താണ് സൂക്ഷിക്കേണ്ട റോഡുകളിലും നമ്മൾ എന്താണ് ബൈക്ക് ഓടിച്ചു എന്നാൽ എൻ്റെ കൈയിൽ നിൽക്കും എന്നുള്ള വിശ്വാസത്തോടെ അല്ല കൃത്യമായിട്ട് വണ്ടി നന്നായിട്ട് എൻ്റെ കൈയിൽ പരിചയത്തിന് വന്നു അതുപോലെയുള്ള സ്പീഡ് കുറച്ചു പോകേണ്ടത് സ്പീഡ് കുറച്ച് പോവുക ഇൻഡിക്കേറ്റർ ഇടേണ്ടത് ഇൻഡിക്കേറ്ററ് കൃത്യമായിട്ട് ഉപയോഗിക്കുക അതൊക്കെ ഏറ്റവും കർശനമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ടൂ വീലറ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളതാണ് പല അപകടങ്ങൾ നടക്കുമ്പോഴും ചെറിയ അപകടങ്ങൾ ആണെങ്കിൽ പോലും ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ തലയ്ക്ക് ഉണ്ടാകുന്ന ക്ഷതം മൂലം പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ മരണത്തിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഏറ്റവും ഇംപോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രൊട്ടക്ടഡ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ആണ് നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ തലച്ചോറാണ് അപ്പോൾ ആ ഒരു ഹെൽമെറ്റ് ധരിക്കുക ഹെൽമെറ്റ് ധരിക്കുന്നതിനോട് കൂടി തന്നെ നമുക്ക് എന്താണ് നമ്മുടെ തലയെ ഏറ്റവും ബാക്കിയുള്ള ശരീര ഭാഗങ്ങൾക്ക് ക്ഷതങ്ങൾ ഏറ്റാൽ പോലും പലപ്പോഴും നമുക്ക് അത് നമ്മുടെ ഇപ്പഴത്തെ മെഡിക്കൽ സയൻസിൻ്റെ ഒരു വളർച്ചയുടെ പുരോഗതി അനുസരിച്ച് നമുക്ക് ഏത് ശരീരഭാഗങ്ങൾ നമുക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പല്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ പാടായിരിക്കും അപ്പം ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇംപോർട്ടൻ്റ് പിന്നെ സ്പീഡ് ലിമിറ്റ് ഏകദേശം നമ്മുടെ പൊതുനിരത്തിൽ അല്ലെ ഹൈവേകളിൽ എഴുപത് ടു എൺപത് അല്ലേ എന്നുള്ള സ്പീഡ് ലിമിറ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നല്ല റോഡ് ആണ് എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പീഡ് വളരെ അധികം കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനും നമ്മടെ ഓപ്പോസിറ്റ് വരുന്നവരുടെ ജീവനും അതൊരു പ്രശ്നമായി തീരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡ് ലിമിറ്റ് കുറയ്ക്കുക ഹെൽമെറ്റ് വിയ്യാ ലൈസൻസ് ഉള്ളവർ മാത്രം വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇംപോർട്ടൻ്റ് ആയിട്ടു നടപ്പിലാക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്നത്